ഞാൻ നാടകം ചെറുപ്പത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോക്കുണ്ട് അഭിനയിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെന്നു വച്ചു കഴിഞ്ഞാൽ ആരും നാടകമൊന്നും കഴിക്കുന്നതായിട്ട് കാണുന്നില്ല നാടകം ചെയ്യുന്നതും ഇല്ല നാടകത്ത് ആകെ എന്നു വച്ചു കഴിഞ്ഞാൽ എനിക്ക് വമ്പൻ ഇഷ്ടമാണ് ഞാൻ നാടകത്തിലൊക്കെ കുറേ പോയി കൊണ്ടിരിക്കുന്നതാണ് ബട്ട് ഇപ്പം ആണെങ്കിൽ നാടകം ഇല്ല നാടകം എവിടെയും കാണാനില്ല നാടകം വരണം എന്നാണ് തിരിച്ചു നല്ലപോലെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ അതേപോലെ തന്നെ നാടകം എന്നു വച്ചു കഴിഞ്ഞാൽ ഒരു കലയാണ് അത് കേരളത്തിലും എല്ലാ സ്ഥലത്തും വേണ്ട ഒരു സംഭവം തന്നെയാണ് അത് ആൾക്കാരെ കലകളെ കുറിച്ചു പറയുന്നതുമാണ് പിന്നെ അത് നല്ല ഭാവനയാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ വച്ചു കഴിഞ്ഞാൽ ഫോണിലൊക്കെ കളിച്ചു ഇരിക്കുന്ന സമയത്ത് അവർക്ക് നാടകത്തിന് വേണ്ടി അവിടേക്ക് വിടുക അവർക്ക് കണ്ടു ഇങ്ങനെ ഓരോ അറിവുകൾ നേടാനും പറ്റുന്നതാണ് ഇപ്പം ആണേ നാടകമോ ഇല്ല ഒന്നും ഇല്ല ഈ നാട്ടുകാർ എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്ന ഒരു സമയമായിരുന്നു നാടകം ഞാനും കുറേ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഓരോ സമയത്ത് സ്കൂൾ സമയത്ത് കുറേ നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് നാടകത്തിൽ കുറേ കളിച്ചിട്ടുണ്ട് നാടകമൊക്കെ നല്ല അഭിനയം ആണ്